ഈ ഡാൻസെന്നു പറയുമ്പോൾ ഒരു ഫീലിങ്സാണ് ഈ ഡാൻസെന്നു പറയുന്നത് ടു ടൈപ്പ്സ് ഓഫ് ഡാൻസുണ്ട് അതായത് ക്ലാസിക്കലും ഉണ്ട് സിനിമാറ്റിക്കും ഉണ്ട് ഈ ക്ലാസിക്കൽ ഡാൻസെന്നു പറയുമ്പോൾ ദൈവത്തിനോട് നമ്മൾ ദൈവത്തിൽ നമ്മൾ എത്രത്തോളം ദൈവത്തിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രെയർ ദൈവത്തിനോട് എത്തിച്ചേരണമെങ്കിൽ ചേരണം എന്നു ചെയ്യുന്ന ഒരു ഇതാണ് ഈ ഒരു ക്ലാസിക്കൽ ഡാൻസ് സിനിമാറ്റിക് ഡാൻസെന്നു പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടും അതുപോലെതന്നെ ഭയങ്കര സ്ട്രോങ്ങായിട്ടും ചെയ്യേണ്ട ഒരു ഇതാണ് ഈ സിനിമാറ്റിക് ഡാൻസേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ ക്ലാസിക്കൽ ഡാൻസും സിനിമാറ്റിക് ഡാൻസെന്നു പറയുമ്പോഴും ഇത് മാത്രമല്ല ഡാൻസ് ഇതുതന്നെ കുറേ ഡാൻസുണ്ട് തീം ഡാൻസുണ്ട് ഉം സിംഗിൾ ഡാൻസുണ്ട് ഫോക്ക് ഡാൻസുണ്ട് ഇപ്പോൾ ഈ കേരളത്തിൽ ബേസ് ചെയ്യുകയാണെങ്കിൽ മെയിൻ ഡാൻസെന്നു പറയുന്നത് തിരുവാതിര കഥകളി മോഹിനിയാട്ടം കുച്ചിപ്പുടി അങ്ങനെയൊക്കെ ഇതായത് പുറത്തോട്ട് പോയിക്കഴിഞ്ഞാൽ അതുപോലെതന്നെ കുറേ ടൈപ്പ് ഓഫ് ഡാൻസസ്സൊക്കെ ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഡാൻസെന്നു പറയുമ്പോൾ എല്ലാം ഒരുപോലത്തെ ആവണം എന്നല്ല ഇപ്പം നമ്മൾ ദൈവത്തിനെ ദൈവത്തിനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒരോരു പ്ലീസിലാണ് ദൈവത്തിനെ ക്ലിയർ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു ക്ലാസിക്കൽ ഡാൻസായിക്കോട്ടെ അത് ഒരു ദൈവത്തിനെ നമ്മൾ ഒരു ദൈവത്തിനെ ഉരുവിടുകയാണെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ ഒരു പ്രയറിനെ അവർക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ എല്ലാം കൂടി ഒരു ക്ലാരിറ്റിയായിട്ട് ഒരു ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ ഒരു തീം ഡാൻസ് ആയിക്കോട്ടെ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഡാൻസിനെ എടുക്കുകയാണെങ്കിൽ ആ ഡാൻസിൻ്റെ ഒരോരു ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആ ഒരു തീമിനെ നമ്മൾ മൈൽഡ്യൂട്ടായിട്ട് കാണിക്കണമെങ്കിൽ അതിനെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ഇത് കറക്റ്റാവും ഈ ക്ലാസിക്കൽ ഡാൻസസ് ക്ലാസിക്കൽ ഡാൻസിനെപ്പോലെ തന്നെയാണ് വരുന്ന ഈ സിനിമാറ്റിക് ഡാൻസും അതുപോലെതന്നെ ഈ ഉത്സവത്തിനൊക്കെ ഇപ്പോൾ ഉത്സവത്തിനു പോയിക്കഴിഞ്ഞാൽ ഉത്സവത്തെതന്നെ ഈ കൈകൊട്ടികളിയെന്നു പറയുന്ന ഒരു ഡാൻസൊക്കെ ഭയങ്കര ഫേമസായിട്ടുള്ള ഒരിതുതന്നെ അപ്പോൾ ഇതെന്നു പറയുമ്പോൾ അതൊരു ടീം വർക്ക് വേണം ഡാൻസെന്നു പറയുമ്പോൾ ഒരാൾക്കു മാത്രം വരുന്ന ഒരു ഫീലിങ്സ് അല്ല ഇതൊരു തീമായിട്ട് ഒരു ഡാൻസ് എടുക്കുകയാണെങ്കിൽ കുറേ ടീം മെമ്പേഴ്സ് വേണം ഉം ടീം മെമ്പേഴ്സും അതുപോലെതന്നെ കുറേപേരും കൂടിയായിട്ട് വരുന്ന ഒരു ഇതാണ് ഡാൻസെന്നു പറയുന്നത് ഇപ്പോൾ ഈ കൈകൊട്ടി കളിയെന്നു പറയുന്നതിൽ കൈകൊട്ടി കളിയിൽ പന്ത്രണ്ട് അതോ പതിനൊന്നോ അല്ലെങ്കിൽ ഏഴുപേരെ കൂട്ടി ചേർത്തിട്ട് എല്ലാവരും ഒരുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഒരു ദൈവത്തിന് ആയിട്ട് ഒരു ചെയ്യുന്ന ഒരു വിഷയത്തിനെയാണ് ഇതെന്നു പറയുന്നത് പിന്നെ ഈ ഒരു ഉത്സവത്തിന് മാത്രമല്ലാണ്ട് കുറേ സ്കൂൾ ഈവൻ്റ്സ് കോളേജ് ഈവൻ്റ്സിനൊക്കെ ഈ ഡാൻസിൽ നിന്ന് പോവുമ്പോൾ ഡാൻസൊക്കെ പോയി പോയി പോയി പോയി ഒരോരോ ഫീലിങ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷയങ്ങളാക്കി പോവുന്നതാണ് ഈ ഡാൻസെന്നു പറയുന്നത് അതായത് ഈ ഡാൻസ് എന്നു പറയുമ്പോൾ എല്ലാവർക്കും ക്ലാസ്സിക്കൽ ഡാൻസ് പഠിച്ചെടുക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പോൾ എല്ലാർക്കും ഒരു ചെറിയൊരു പാട്ടിട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ചെറിയ ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഇടും അതുപോലതന്നെ ഈ ക്ലാസിക്കൽ പഠിച്ചിട്ട് വരുന്ന ആൾക്കാർക്കും ക്ലാസിക്കൽ പഠിച്ചിട്ടു വരുന്ന എല്ലാവരും എല്ലാവരും ക്ലാസിക്കൽ പഠിക്കണമെന്നും ഇല്ല ചിലവർ ചെറുപ്പം തൊട്ട് പഠിക്കുന്നതുകൊണ്ടായിരിക്കാം ഇപ്പൊഴും അവർക്ക് ആ ക്ലാസിക്കൽ ആയിട്ട് ഇഷ്ടം ഈ ക്ലാസിക്കല് കളിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ ഫേസ് എക്സ്പ്രഷൻസൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടാവും അതായത് അവർ ശരിക്കും ആ ഒരു ദൈവത്തിനെ അത്രയ്ക്ക് വിശ്വസിച്ച് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇത്